ഇപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഹെയർ ജെല്ലാണ് അപ്പോൾ ഞാൻ വാക്സ് എന്ന് പറയുന്ന ഹെയർ ജെല്ലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാന് മേടിച്ചപ്പോൾ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ചെറിയ ബോട്ടിലിന് തന്നെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഇതിനെ പറ്റി വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം മേടിക്കുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയെ പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഇത് മനസ്സിലായത് കാരണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക ആദ്യം കൈയിൽ ഒക്കെ ഇടുമ്പോൾ നമുക്ക് അത്ര ക്വാളിറ്റി ഫീൽ ചെയ്യില്ല ജസ്റ്റ് കൈയിൽ തേച്ചതിന് ശേഷം നമ്മള് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത കഴിയുമ്പോളാണ് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി മനസിലാക്കുക അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടിക്ക് നല്ല കട്ടി തിക്നെസ്സ് ഒക്കെ ഫീൽ ചെയ്യും അതില് എന്താ പറയുക ഓയിൽ പോലെ നല്ല ക്രീമി ടൈപ്പ് അങ്ങനെ ഒരു ഇതിലാണ് ഉള്ളത് ഫോമിലാണ് ഉള്ളത് പിന്നെ മുടിക്ക് അത്യാവശ്യം നല്ല ഫിനിഷിങ് ബ്ലാക്ക് കളർ ഒക്കെ കിട്ടുന്നുണ്ട് അത്കൊണ്ട് എന്താ പറയുക എനിക്ക് ക്യാഷിന് വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ടാണ് തോന്നിയത് പിന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിന് ഞാൻ ഇത് തന്നെയാണ് റെഫർ ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഹെയർ ജെല്ലായിട്ടാണ് എനിക്ക് അത് തോന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എല്ലാർക്കും റെഫർ ചെയ്യുന്നുമുണ്ട് ഇതിന് സൈഡ് എഫക്ട് ഒന്നും കാര്യമായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിട്ടില്ല അത് കൊണ്ട്തന്നെ നല്ല പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്